എൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്നു പറയുന്നത് ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് അതിനെ പറ്റി പോസിറ്റീവ് ആയിട്ട് പറയാനാണെങ്കിൽ ഓൺലൈനിൽ കൂടെ എടുത്തതിൽ എനിക്ക് റേറ്റ് കുറച്ചു കിട്ടുകയും നല്ല കടകളിൽ ഇല്ലാത്ത കളറുകളിൽ നിന്ന് ഓൺലൈനിൽ ആയത് കൊണ്ട് സെലക്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്തു പിന്നെ